ഇത് ഇത് നെല്ലിക്കുത്ത് ബുക്ക്സ്റ്റാള് അല്ലേ ആ എനിക്കൊരു ആടുജീവിതം എന്നുള്ള ബെന്ന്യാമിൻ്റെ ബുക്ക് വേണമായിരുന്നു പിന്നെ ഇപ്പം നിലവിൽ ഏതാ ഉള്ളത് അപ്പോൾ കടൽ തീരത്ത് അതിനൊക്കെ എത്രയാകും വില

ആ ആണോ ആ ഇതിൽ തകഴി കിട്ടിയാൽ കൊള്ളാം എന്നുണ്ട് ചെമ്മീൻ്റെ നിങ്ങൾ നിങ്ങൾ ഇങ്ങോട്ട് അയച്ച് തരില്ലേ എത്ര ദിവസം കൊണ്ട് കൊറിയറിലൊക്കെ അയച്ചാൽ എത്ര ദിവസം എടുക്കും അതിന് കൂടുതൽ പൈസ വാങ്ങുമോ ആ എന്നാൽപ്പിന്നെ അങ്ങനെ അയച്ചാൽ മതി അത് മതി ആ ചെമ്മീൻ ആ ആ എന്നാൽ ശരി